അത് ഏതൊക്കെയാണ് നമ്മുടെ ഫുട്ബോൾ ഉണ്ടാവും ക്രിക്കറ്റ് ഉണ്ടാവും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ അതൊക്കെ തന്നേ ഉള്ളൂ ഇപ്പം വള്ളം കളി മറ്റേ ഒരു വള്ളം കളികൾ ഉണ്ടാവും ചാംബ്യൻസ് ട്രോഫി മറ്റേ വള്ളം കളി തന്നെ പിന്നെ ബോട്ട് കുട്ടനാടൊക്കെ പോയിക്കഴിഞ്ഞാൽ വള്ളം കളി സ്ഥിരം ഇതല്ലേ ഇതൊക്കെ തന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല